കാഴ്ച വൈകല്യം ഉള്ളവർക്ക് ഏറ്റവും കൂടുതല് പ്രധാനപെട്ട ഒരു സാങ്കേതിക വിദ്യയാണിത് അതിന്റെ ഡീടെയ്ല്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു കൃത്യമായ ധാരണയില്ല എങ്കിലും ക ജന്മനാ അങ്ക അതായത് കാഴ്ച ഇല്ലാത്തവര്ക്കും ഈ ഒരു സംഭവത്തിൽ കൂടെ അവര്ക്ക് അറിവുകൾ സമ്പാദിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് സാങ്കേതിക വിധ്യയുടെ വളര്ച്ചയുടെ ഏറ്റവും വലിയ പ്രയോജനമാണ് ഇതെന്ന് ഞാന് കരുതുന്നു കാരണം ആര്ക്കും കാഴ്ച ഇല്ലാത്തോണ്ട് അവര്ക്ക് വിവരങ്ങൾ അല്ലെങ്കിൽ അവര്ക്ക് അറിവുകൾ നേടാന് സാധിക്കാതെ പോകാതിരിക്കാന് ഉള്ള ഒരു സാധ്യത വര്ദ്ധിച്ചിരിക്കുകയാണ് അത് ഇല്ലാതില് ഇല്ലാതിരുന്നാല് എന്നല്ല പറയുന്നത് എങ്കിലും അതിനുള്ള സാധ്യതകൾ നമ്മള് തോ കണ്ടമാനം കു ഉയരങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അത് നമ്മളെ സംബന്ധിച്ചെടുത്തോളം വളരെ മികച്ച ഒരു നേട്ടമാണ് ഒരു പരിധി വരെ അത് നമ്മളെ എത്രത്തോളം സഹായിച്ചെന്ന് നമുക്ക് പറയാന് പറ്റില്ല അതിനും അപ്പുറത്താണ് അതിന്റെ വളര്ച്ചയും അതിന്റെ അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും